ആ ഇത് ഗാലക്സി വെജിറ്റബിൾ ഷോപ്പ് ആണോ അതെ ഒരു സൺഡേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫങ്ക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇരുപത് കിലോ തക്കാളിക്ക് ആവശ്യമുണ്ടായിരുന്നു ഇത് കട്ടപ്പന

ഓ സാറ്റർഡേ ഒരു വൈകിട്ട് മതി അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും അറിയാനും പിന്നെ ഞങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണോ എന്നു അറിയാനായിട്ടുമാണ് വിളിച്ചത് ഓ ഓ ആ അപ്പോൾ ഇരുപതു കിലോ എടുക്കുമ്പോൾ കുറച്ചു കുറച്ചു തരുമോ

ആ അത് അടുത്ത ദിവസം അതായത് വരുന്നതിൻ്റെ തലേന്ന് അയച്ചാൽ മതിയല്ലോ ആ അത് ഞാൻ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തേക്കാം ആ ആ ആ ഏയ് ഞങ്ങൾ അങ്ങനെ പറ്റിക്കേല കാരണം നിങ്ങളുടെ ഇത് ഒരുപാട് പേർ ഇങ്ങനെ വാങ്ങിച്ചതായിട്ട് പറഞ്ഞത് നമ്മളെ വീടിനടുത്തുള്ളവരും പിന്നെ റിലേറ്റീവ്സ് ഒക്കെ അപ്പം നല്ല സാധനങ്ങളാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് ആൾക്കാരൊക്കെ വച്ച് അതുകൊണ്ട് ഓ ഓ ആ

പേര് ജയലക്ഷ്മി

സ്ഥലം കട്ടപ്പന അഡ്രസ് ആ ഇരുപതു കിലോ ആ ആ ഇത് ആ അപ്പോൾ കുറച്ചു പൈസ കുറച്ചു തരുമായിരിക്കുമല്ലോ അല്ല എന്താണെന്നു വച്ചാൽ ആ ആ ആഹാ ആ ഓക്കെ ആ ഞാൻ എന്തായാലും രാവിലെ തന്നെ വിളിക്കാം ശനിയാഴ്ച രാവിലെ ആ ആ ഓക്കേ ആയിക്കോട്ടെ